ടെറസ്സിലും നട്ടിട്ടുണ്ട് മുറ്റത്തും നട്ടിട്ടുണ്ടായിരുന്നു ടെറസ്സിലേത് നല്ല രീതിയിൽ വളർന്നു വന്നതായിരുന്നു പക്ഷേ അത് ഇച്ചിരി നോട്ടം കുറഞ്ഞു പോയതിനാണ് കുറേ വണ്ടുകൾ കയറി നല്ല റോസാച്ചെടിയുടെ എല്ലാ ഇതളെല്ലാം അത് തിന്നു നശിപ്പിച്ചു പിന്നെ ഇച്ചിരി ചൂട് വെയിലടിക്കാതിരിക്കാനായിട്ടുള്ളതൊക്കെ വലിച്ച് കെട്ടിയിട്ടൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇച്ചിരി ചൂടടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ചെല്ലാം വാടിയൊക്കെ പോയിരിന്നു മുറ്റത്തുള്ളതിനൊന്നും ഒരു കേടുമില്ല അതു നല്ല രീതിയിൽ മണൽ നല്ലതായിട്ട് മണ്ണിനകത്തായതുകൊണ്ട് നല്ല രീതിയിൽ വേരെല്ലാം പിടിച്ചു നല്ലതായിട്ടുണ്ട് ചെണ്ടുമുല്ലയൊക്കെ നല്ല ഫസ്റ്റായിട്ടുണ്ട് ജമന്തിയെല്ലാം നല്ല രീതിലെല്ലാം നിൽക്കുന്നും ഉണ്ട് ടെറസ്സിൽ ഇഷ്ടംപോലെ ടെറസ്സിലെ നമ്മുടെ നോട്ടപ്പിശകുകൊണ്ട് പറ്റിയെന്നുള്ളതെ ഉള്ളു കുറേ നല്ല രീതി നോക്കിയാൽ മതിയായിരുന്നു റോസയുണ്ട് പലതരം ഒരു കുറേ കുറേ ഒരു എട്ട് പത്ത് തരത്തിലുള്ള റോസകളുണ്ട് മുല്ലയുണ്ട് പിച്ചിയുണ്ട് അങ്ങന കുറേ തരത്തിലുണ്ട് എല്ലാം നമ്മളിപ്പം ഒരു ദിവസം ഒരു കുഞ്ഞിനെ നോക്കുന്നപോലെ കുറച്ച് സമയമെല്ലാം അതിനെ പരിപാലിക്കുകയാണെങ്കിൽ അതു നല്ലതാണ് നല്ല കുറേ പൂ നിൽക്കുകയെന്നു പറയുന്നത് എന്ത് രസമാണ് കാണാനായിട്ട് അതിനകത്ത് പോയി നിൽക്കുമ്പോൾ തന്നെ ഒത്തിരി ആശ്വാസവും സന്തോഷവും ആണ് കിട്ടുന്നത് നമുക്ക് അതിൻ്റെ മണവും അതെല്ലാം അടിച്ചു കഴിയുമ്പോഴത്തേക്ക് നല്ല ഒരു സുഖം ഉണ്ട്